ആ ഹലോ അതെയതെ ആ അതെ അല്ല ഞാൻ നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ ഇന്ന് ലീവാണ് സത്യത്തിലിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് തിങ്കൾ ടു ശനി വരെയാണ് ഞാൻ ക്ലിനിക്കിലുള്ളത് പിന്നെ നിങ്ങൾക്കത്യാവശ്യം നിങ്ങളെവിടുന്നാണ് വിളിക്കുന്നത് ഇവിടെ അടുത്താണോ ശാസ്താനഗറന്നല്ലേ ഞങ്ങളിവിടെ പാറക്കെട്ട് ശാസ്താനഗറും പാറക്കെട്ടുമായിട്ട് ശാസ്താനഗറല്ലേ ആയിക്കോട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യ് ഇന്ന് വീട്ടിലേക്ക് വന്നോളൂ കുഴപ്പമില്ല ഞാൻ സാധാരണ ഞായറാഴ്ചകളിൽ നോക്കാറില്ല പക്ഷെ ആ പക്ഷെ നിങ്ങൾക്കിപ്പോൾ വയ്യല്ലോ വീട്ടിൽ ടെസ്റ്റിംഗ് ഇല്ല പിന്നെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വയറുവേദന എന്താണെന്നൊന്നു നോക്കിയിട്ട് ഇന്നത്തേക്ക് വേണ്ടി ഞാനൊരു മരുന്ന് തരാം പിന്നെ അതുകഴിഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് ആ മരുന്ന് കൊണ്ട് കുറയുന്നില്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാം അതിപ്പോൾ നാളെ ഇന്നിപ്പോൾ ഞായറാഴ്ച ടെസ്റ്റിംഗ് ഇല്ലല്ലോ നാളെ നാളെക്കഴിഞ്ഞൊക്കെയായിട്ട് നാളെ ആയിട്ട് ചെയ്യാനായിട്ട് ഞാനെഴുതിത്തരാം നിങ്ങൾ ഇന്ന് ആ ഇന്നത്തേക്ക് നിങ്ങക്കിപ്പോൾ വലിയ വേദനയല്ലേ അതു കൊണ്ട് അതൊന്നു ഒന്ന് ശമിക്കാൻ വേണ്ടി ഇന്നത്തേക്ക് അതു ചെയ്യാം നിങ്ങൾ വന്നോ ആയിക്കോട്ടെ ആ ആ ആ എൻ്റെ വീട് പക്ഷെ അറിയാമോ നിങ്ങൾക്ക് ആ വിധു ഡോക്ടറിൻ്റെ ഓപ്പോസിറ്റ് വീടാണ് ആ ആ അതെ അതെ അവരാകുമ്പോൾ ബോർഡ് ഉണ്ടല്ലോ അതുകാണുമ്പോൾ നിങ്ങക്കറിയാലോ ഡെയിലി ഞാനിവിടെ വീട്ടിൽ ക്ലിനിക്കിൽ പോകുന്നത് കൊണ്ട് ഇവിടെ വീട്ടിൽ ബോർഡ് വച്ചിട്ടില്ല ആ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വയറുവേദനാണെന്നു പറയുമ്പോൾ അതിപ്പം നാളെ വരെ വച്ചോണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അതു കൊണ്ടു മാത്രം നോക്കുന്നതാണ് അല്ലാതെ ഞാൻ ഞായറാഴ്ചകളിൽ നോക്കാറില്ല സാധാരണ അ അത് നിങ്ങൾ കഴിച്ച ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെയോ മറ്റോ പ്രശ്നമായിരിക്കാം ഒരു പക്ഷെ പിന്നെ വന്നു നോക്കുമ്പോൾ എനിക്കത് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എന്താണെന്നു എന്നിട്ടതിനുള്ള ഒരു മെഡിസിൻ ഞാൻ തരാം പിന്നെ കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ മറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മരുന്നെടുക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല ആ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ ഓക്കെ കഴിഞ്ഞോ എന്നു ആ നിങ്ങൾക്ക് എത്രയും വേഗം വരാൻ പറ്റുന്നത്രയും നിങ്ങൾക്ക് വീട്ടിൽ ഭർത്താവില്ലേ അവരേയും കൂട്ടി ണ്ട് വണ്ടിയോ മറ്റോ എടുത്തിട്ട് വന്നോ ഇഞ്ഞ് കാരണം വേഗത്തിലായിക്കോട്ടെ ആ

അപ്പം അപ്പം എന്താണ് എന്നാൽ ആരെങ്കിലും നടന്നിട്ട് ശാസ്താംനഗർ ഇവിടെയടുത്തല്ലേ നിങ്ങൾക്ക് നടന്നിട്ട് വരാം പക്ഷെ വയറു വേദനയല്ലേ അല്ലേ കഴിഞ്ഞിട്ട് അത് മോളെയോ മോനെയോ ആരെയെങ്കിലും ഒരാളെ ഒന്ന് കൂട്ടിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ നോക്ക് ഇല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ കിട്ടുമോ എന്ന് നോക്ക് എന്നിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കേ ആ ആയി സമയമായി ഓക്കെ ഓക്കെ